മത്സ്യബന്ധനത്തിന് നമ്മള് ചെറിയ തരം ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് കാരണം ചെറിയ തരം ബോട്ടുകളാകുമ്പോൾ ഒന്നോ രണ്ടാളുകൾക്ക് പോകാം അപ്പോൾ കാശുമായി മീനിനെയൊക്കെ ശേഖരിച്ച് കൊണ്ടുവരാം വലിയ ബോട്ടാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിന് ബോട്ട് ഒരുപാട് എക്സ്പെൻസിവ് ആണ് പിന്നെ അത് ഓടിക്കാൻ ഒരാള് വേണം പിന്നെ ഒരുപാട് മീനെ അപ്പൊൾ നമ്മള് ഇതാക്കേണ്ടി വരും അപ്പൊൾ അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് അപ്പൊൾ ചെറിയ തരം ബോട്ടാകുമ്പോ കുറച്ചുംകൂടെ നല്ല രീതിയില് അതിനെ കൊണ്ട് നടക്കാൻ പറ്റും എൻ്റെ കയ്യിലിള്ളത് ചെറിയ തരം ബോട്ടാണ്